എന്നെ ചിത്രരചനയെ സ്വാധീനിച്ചത് എന്ന് വെച്ചാൽ ചെറുതിലെ എനിക്കിങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ബാലരമ അതുപോലെ ഓരോ മേഗസിനൊക്കെ ഉണ്ടാകില്ലേ അപ്പോൾ ചിത്രരചന ഇന്ന് വിജയിച്ച ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പേജിൽ ഇങ്ങനെ ഫോട്ടോസ് കൊടുക്കില്ലെ ചെറിയ കുട്ടികൾ തന്നെ വരച്ച ചെറിയ ചെറിയ എന്തെങ്കിലും ഇപ്പോൾ മാൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പുഴ അങ്ങനെയൊരു വീടും പരിസരവും വരച്ചത് പിന്നെയൊരു പക്ഷികളുടെ ഫോട്ടോ വരച്ചത് അങ്ങനെ ചെറിയ ചെറിയ ചിത്രം വരച്ചിട്ട് ഇപ്പോൾ സമ്മാനം കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹം വരും ആ അങ്ങനെ ചിത്രം വരച്ചിട്ട് എനിക്കും സമ്മാനം വാങ്ങണം എന്നുള്ളൊരു ബോധം ചിന്ത എനിക്കും വരും അങ്ങനെയാണ് ഞാനിപ്പോൾ ഓരോ ഇപ്പോൾ ഓരോ ഇപ്പം നമ്മുടെ അട മുന്നിൽ കാണുന്ന ചിത്രങ്ങൾ തന്നെ നോക്കി വരയ്ക്കും പിന്നൊരു ആറ് ആറാം ക്ലാസിലൊക്കെ എത്തുമ്പോൾ ഒരു ഒരു പിരീഡ് തന്നെ ചിത്രരചന എന്നുള്ളൊരു പിരി ഡ്രോയിങ് എന്നുള്ളൊരു പിരീഡ് തന്നെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൽ ടീച്ചർ വന്നിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ നമുക്ക് നമ്മുടെ ഇരുത്തിയിട്ട് മുന്നിലുള്ളൊരു മരം നോക്കിയിട്ട് അത് വരയ്ക്കാൻ പറയും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചിത്രരചന പഠിച്ചു വന്നത് അല്ലാണ്ട് കര കലാകാരന്മാരോ പ്രസ്ഥാനങ്ങളോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഓരോ മാഗസീനിൽ ഒക്കെ ഓരോ ഫോട്ടോസും ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ആ രീതിയിൽ വരയ്ക്കണമെന്ന് തോന്നി വരച്ചതാണ് ഞാൻ